വിദ്യാർത്ഥികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് എനിക്കിപ്പം ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന കാലത്ത് എനിക്കും ചെറിയ രീതിയിൽ ഒരു സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞു ഒരു രണ്ടു മൂന്നു മാസം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അക്കൗണ്ട് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്നിട്ട് അക്കൗണ്ട് എടുത്തു അതിനകത്തേക്ക് ചെറിയൊരു എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും കൂടുതലായിട്ടും സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ നല്ലതാണ് അപ്പം അത് പെൺകുട്ടികൾക്ക് ആണെങ്കിലും ആൺകുട്ടികൾക്ക് ആണെങ്കിലും നല്ലതാണ് കൂടുതലായിട്ടും പെൺകുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അവർ നല്ല രീതിയിൽ പഠിച്ച് ആദ്യത്തെ കാലത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെൺകുട്ടികൾ അധികം പഠിക്കാൻ പാടില്ല അങ്ങനത്തെ കുറെ ഇതായതുകൊണ്ട് പെൺകുട്ടികൾക്ക് കൂടുതലും മുൻഗണന കൊടുക്കാറുണ്ട് അപ്പോൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം കാഴ്ച വെച്ച് അവർക്ക് നല്ലൊരു ജോലി കിട്ടണം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ആയതുകൊണ്ടാണ് സ്കോളർഷിപ്പ് എല്ലാ എല്ലാ പെൺകുട്ടികൾക്കും കൊടുക്കാറുള്ളത് അത് നമ്മുടെ സ്കൂളുകളിലും ആ പദ്ധതികളൊക്കെ ഉണ്ട്